എൻ്റെ ഗ്രാമത്തിൽ ഇപ്പം കുടുംബങ്ങൾ തമ്മിലൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഇതാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായതിപ്പോൾ കുടുംബത്തിലുള്ള തർക്കങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുടുംബാമാണെങ്കിൽ നമ്മൾ എന്തായാലും വഴക്കുകൾ ഇല്ലാത്ത കുടുംബങ്ങൾ ഒന്നും ഉണ്ടാകില്ല അത് അതിരു കടന്ന് പോകുമ്പോഴാണ് വലിയ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇവിടെ അത് നമ്മൾ വായും കൊണ്ട് വർത്താനം പറയുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല പക്ഷെ നമ്മളത് കയ്യാങ്കളി ആകുമ്പോഴാണ് അത് നമുക്ക് വലിയ പ്രശ്നം ആകുന്നത് അപ്പം ഞങ്ങള വീട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അടുത്ത വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ടായിരുന്നു അപ്പം ചേട്ടൻ അറിയാണ്ട് ചേച്ചിക്ക് വേറെ ഒരു ബന്ധം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഭയങ്കര പ്രശ്നമൊക്കെ ആയീ അതായത് പിന്നെ വീടിൻ്റെ അടുത്തുള്ള ആൾകാരെല്ലാവരും അറിഞ്ഞു അപ്പം ആ ചേട്ടൻ ആ ചേച്ചീനെ വേണ്ടയെന്നുള്ളൊരു രീതിയിലായി അപ്പം പിന്നേ പിന്നെ അങ്ങനെ ആ ചേച്ചീൻ്റെ സ്വന്തം വീട്ടിൽ കൊണ്ട് വിട്ടു പിന്നെ ആ പോലീസ് ഒക്കെ വന്നു കുറേ എന്താ ചേട്ടന് വേണ്ടായെന്നുള്ള രീതിയിൽ തന്നെ ആയി അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചേച്ചി അവർക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് അപ്പം ചെറിയ ചെറിയ കുട്ടികളാണ് ഉള്ളത് അപ്പം ചേച്ചി ചേച്ചീൻ്റെ കൂടെയാണ് കുട്ടികൾ പോയത് അപ്പം അതൊന്നും നമുക്ക് പ്രശ്നം തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ആയിരുന്നു നമ്മൾ മാക്സിമം ശ്രമിച്ചു പക്ഷെ അവർ രണ്ട് പേരും തമ്മിൽ പിന്നെ അതായത് ചേട്ടന് അത് ഉൾകൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നു